അടുത്തുള്ള പട്ടണത്തിൽ എന്ന് വെച്ചാല് നമ്മളിപ്പോള് ഒരു സ്ഥലത്തേക്ക് നമ്മള് കൂടുതൽ അടുത്തെന്നു പറയാൻ പറ്റില്ല ഇപ്പോള് നമ്മള് ബാംഗ്ലൂരൊക്കെ പോവുകയാണെങ്കില് വല്ലാത്ത സൗകര്യക്കുറവും ആടെ അവിടെ രണ്ട് അതായത് അവിടെ നമുക്കിപ്പോള് ബസിൽ പോവുകയാണെങ്കില് ബുദ്ധിമുട്ടില്ല ബസിൽ പോവുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേങ്കില് നമ്മളിപ്പോള് ട്രെയിനിലൊക്കെ പോവുകയാണെങ്കിൽ അതാണ് സൗകര്യപ്രദമായിട്ടുള്ള കാര്യം അപ്പോള് അടുത്തുള്ള ഒരു പട്ടണത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ നമ്മള് നേരത്തെ തന്നെ മുൻകൂട്ടി നമ്മളവിടെ അ എന്താണ് ബസിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും സീറ്റൊക്കെ റിസർവ് ചെയ്ത് വെക്കണം ബുക്ക് ചെയ്തു വെക്കണം എന്നാലേ നമുക്ക് നല്ല രീതിയില് ഒരു യാത്ര പോവാൻ പറ്റൂ നമ്മള് പെട്ടെന്ന് തീരുമാനിച്ച് പോവുന്നൊരു യാത്രയാണെങ്കിൽ തീർച്ചയായും നമ്മളൊരു പട്ടണത്തിൽ നിന്നും മറ്റൊരു പട്ടണത്തിലേക്ക് പോവുമ്പോൾ യാത്രകളിൽ ബുദ്ധിമുട്ടാറുണ്ട് കാരണമെന്നുവെച്ചാല് നമുക്ക് എന്താണവിടെ ഇരിക്കാനുള്ള സീറ്റ് സൗകര്യങ്ങളുണ്ടാവില്ല അതേപോലെ തന്നെ നമ്മളൊരു പട്ടണത്തിലേക്ക് പോവുമ്പോള് നമ്മളെ പട്ടണത്തിലുള്ള രീതികളായിരിക്കില്ല അവിടെ ഉള്ളത് ഭക്ഷണ രീതി ആവട്ടെ താമസരീതി ആവട്ടെ എന്തോ ആവട്ടെ എല്ലാ രീതികളിലും പല രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാവും ഇതൊക്കെ നമ്മള് മനസ്സിലാക്കി അതില് പൊരുത്തപ്പെട്ടു വരാൻ കുറച്ച് സമയെടുക്കും അപ്പോള് ഇതുപോലുള്ള സാഹചര്യത്തിൽ നമ്മള് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട് എന്നെ സംബന്ധിച്ച് ഞാനിപ്പം കാസർഗോഡുള്ള ഒരാളാണ് ഞാനിപ്പം എൻ്റെ ഭർത്താവ് വർക്ക് ചെയ്യുന്നത് എറണാകുളത്താണ് ആ സമയത്ത് അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടാറുണ്ട് കാരണമെന്നു വെച്ചാല് നമുക്കറിയാം നമ്മളെ കാസര്ഗോഡ് നിന്ന് പട്ടണത്തിൽ കാസർഗോഡുള്ള ഭാഷയെന്നു പറയുന്നതും അതേസമയത്ത് എറണാകുളത്തുള്ള ഭാഷയെന്നു പറയുന്നതും വല്ലാണ്ട് മാറ്റങ്ങളുണ്ട് അപ്പം ഈ മാറ്റങ്ങള് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ സംസാരിക്കാൻ പറ്റണം സംസാരം മലയാളം ആണെങ്കിലും വല്ലാണ്ട് മാറ്റങ്ങളുള്ള ശൈലി ആണ് അവിടത്തേത് അപ്പം അത് മനസ്സിലാക്കാൻ പറ്റണം മലയാളം നന്നായി വായിക്കാൻ പറ്റണം കാരണം നമ്മള് കേരള സൈഡിലോട്ട് പോവുകയാണെങ്കിൽ മൊത്തത്തിൽ മലയാളമാണ് അപ്പം മലയാളം നന്നായി വായിക്കാൻ പറ്റണം കാരണമെന്താണെന്നു വെച്ചാല് ഓരോ ബസിലാവട്ടെ ഏതൊരു സ്ഥാപനത്തിൽ കയറിയിറങ്ങുകയാണെങ്കില് എല്ലാം എന്താണ് മലയാളത്തിലാണ് ബോർഡുകൾ ഉണ്ടാവുക ഇതറിയാത്തൊരാൾ അവിടെ പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട് അതേപോലെ തന്നെ ഭക്ഷണമായാലും നമ്മൾ പറയുന്നത് നമ്മളിവിടെ പറയുന്നത് അതായത് നമ്മൾ കാസർഗോഡ് ഭക്ഷണത്തിനു ഒരു പേര് പറയുകയാണെങ്കിൽ മറ്റൊരു പട്ടണത്തിൽ പോയി കഴിഞ്ഞാൽ അതേ പേരല്ല അവിടെ അതിനു പേരുകളിൽ മാറ്റങ്ങളുണ്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഉള്ളി ഇവിടെ നമ്മൾ ഉള്ളി എന്ന് പറയുകയാണെങ്കിൽ അവിടെ പോയിക്കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് പോയിക്കഴിഞ്ഞാൽ അതിനെ സവാളയെന്നും പറയാറുണ്ട് അതേപോലെത്തന്നെ നമ്മളുടെ പല സാധനങ്ങളുടെ പേരുകള് നമ്മള് മറ്റൊരു ജില്ലയിലോട്ട് പോയിക്കഴിഞ്ഞാൽ പല രീതിലുള്ള മാറ്റങ്ങളുണ്ട് അപ്പം അതൊക്കെ നമുക്ക് എന്താണ് പെട്ടെന്ന് പോയി അവിടെ നില്ക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതില് വല്ലാത്ത ബുദ്ധിമുട്ടുകള് അനുഭവപ്പെടാറുണ്ട് അതേപോലെ തന്നെയാണ് ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും അല്ലെങ്കില് ഒരു സ്ഥാപനത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും സംസാരരീതി ആവട്ടെ ഭക്ഷണരീതി ആവട്ടെ താമസരീതി ആവട്ടെ എല്ലാത്തിലും നമ്മളെന്താണ് ആ പട്ടണത്തിൻ്റെ രീതി അറിയാത്തൊരാളാണെങ്കില് തീർച്ചയായും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട് അപ്പോള് ഇതൊക്കെ മനസ്സിലാക്കി കൊണ്ടുവേണം നമ്മള് ഓരോ പട്ടണത്തിലേക്ക് പോവാൻ അവിടത്തെ സാഹചര്യം എന്താണ് അവിടെ എങ്ങനെയാണ് നമ്മള് പെരുമാറേണ്ടത് അവിടത്തെ രീതി എന്താണ് അവരുടെ സംസാര ശൈലി എന്താണ് അവിടത്തെ ഭക്ഷണ രീതി എന്താണ് ഇതൊക്കെ അറിയാത്തൊരാളാണെങ്കിൽ തീർച്ചയായും വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട് ഞാനിതുപോലെ തന്നെ അവിടെ പോയ സമയത്ത് എനിക്ക് അവിടത്തെ ഭാഷകളും മനസ്സിലായില്ല അതേപോലെ തന്നെ ചില കടയിൽ പോയി കഴിഞ്ഞാൽ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് നമ്മളിവിടെ നാട്ടിൽ പറയുന്ന സാധനങ്ങളുടെ പേരല്ല അവിടെ അപ്പം നമുക്ക് യാതൊരു സാധനങ്ങളും വാങ്ങാൻ പറ്റുന്നില്ല എവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ പോയിക്കഴിഞ്ഞാല് മലയാള ബോർഡുകൾ നന്നായി വായി കാരണമെന്താണെന്നുവെച്ചാല് കാസർഗോഡുള്ള ആളുകളെ സംബന്ധിച്ച് അവര്ക്ക് കന്നഡ അറിയാം മലയാളം അറിയാം ഹിന്ദി അറിയാം എല്ലാ ലാംഗ്വേജുകളും അറിയുന്ന ആൾക്കാരായതുകൊണ്ടു തന്നെ ഏതൊന്നും തീർച്ചയായും കറക്റ്റ് എല്ലാം ശരിയായി മനസ്സിലാക്കുന്ന ഒരു ആളായിരിക്കില്ല അപ്പോള് മലയാളം നന്നായി അറിയണം ചില ചിലപ്പോള് അയാള് കന്നഡ പഠിച്ച ആളാണ് അങ്ങോട്ട് പോകുന്നതാണെങ്കിൽ അയാൾക്ക് മലയാളത്തിലുള്ള ഒരു ബോർഡ് വായിക്കാൻ പറ്റില്ല അപ്പോള് അത് നമ്മള് ബുദ്ധിമുട്ടുന്ന കാര്യമാണ് അതേപോലെ തന്നെ നമ്മൾ കർണാടകയിൽ പോയി കഴിഞ്ഞാല് നമ്മളിപ്പോള് എന്താണ് മലയാളം അറിയുന്ന ആളാണ് കർണാടകയിൽ പോയി കഴിഞ്ഞാലോ അവിടെ എല്ലാ കാര്യങ്ങളും കന്നഡയിലാണ് എവിടെ ഏതൊരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാലും ബസുകളെല്ലാം ആവട്ടെ മറ്റേ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലാവട്ടെ ഒരു ഹോസ്പിറ്റലിലാവട്ടെ എവിടെ പോയി കഴിഞ്ഞാലും കന്നഡത്തിൻ്റെ ആൾക്കാരാണുള്ളത് കന്നഡ ബോർഡുകളാണുള്ളത് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരെ എന്തെങ്കിലും നമ്മൾ തനിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ആരോടും ചോദിക്കാൻ പറ്റുന്നില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടാണത് അപ്പോള് നമ്മള് ഒരു ഹോസ്പിറ്റലിലൊക്കെ കയറിക്കഴിഞ്ഞാല് എന്തോരു ബുദ്ധിമുട്ടുകളാണ് അനുഭവപ്പെടുന്നത് അപ്പോള് ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകള് നമ്മൾ തീർച്ചയായും ഓരോരുത്തരും നേരിടാറുണ്ട് ഭാഷാ ബുദ്ധിമുട്ടാണത് അപ്പോള് മെയിനായിട്ട് ഒന്ന് ഭാഷയിലുള്ള ബുദ്ധിമുട്ടുകള് നമ്മള് ഓരോ പട്ടണത്തിൽ പോകുന്ന സമയത്തും ആ പട്ടണത്തിൻ്റെ ഭാഷ അറിഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടാണ് പിന്നീട് വരുന്നത് ഭക്ഷണ രീതിലുള്ള ബുദ്ധിമുട്ടുകളാണ് അതായത് ഭക്ഷണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കില് സാധനം വാങ്ങാനറിയണം സാധനം വാങ്ങണമെങ്കില് ആ നാട്ടിലുള്ള അതിനു പറയുന്ന പേരുകളറിയണം അറിഞ്ഞില്ലെങ്കില് നമുക്കത് ചോദിച്ചു വാങ്ങാൻ പറ്റില്ല കാണുന്ന സാധനങ്ങൾ ഇതാണ് അതാണ് എന്ന രീതിയിലേ വാങ്ങാൻ പറ്റുകയുള്ളൂ അതും പിന്നൊരു ബുദ്ധിമുട്ടാണ് പിന്നെ മൂന്നാമത്തെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നോക്കൂ എന്താണ് അവിടെ ഓരോ ഓഫീസിലും അല്ലെങ്കില് ഹോസ്പിറ്റലിലോ അങ്ങനെ എല്ലാം പോകുന്ന സമയത്ത് അതും ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മളവിടെ അനുഭവപ്പെടുന്നത് അപ്പോള് എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മള് അപ്പോള് ഓരോരുത്തരും നേരിടുന്നതാണ് അപ്പോള് ഈ എല്ലാ ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മള് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് അപ്പോള് എല്ലാവരും ആ എന്താണ് നമ്മള് ശ്രദ്ധിക്കേണ്ട വല്യ വലിയൊരു കാര്യമാണ് ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് അവിടത്തെ ഭാഷാരീതികളൊക്കെ മനസ്സിലാക്കുക ഭാഷ മനസ്സിലാക്കിയാൽ തന്നെ കൂടുതൽ ബുദ്ധിമുട്ട് നമ്മള് ഒഴിവാകും ഭാഷ അറിയാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് മെയിനായും നമ്മള് നേരിടേണ്ടി വരുന്നത് ഭാഷ അറിഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇത്രയും ബുദ്ധിമുട്ട് നേരിടേണ്ടി വരില്ല എല്ലാവരും അടുത്തുള്ള പട്ടണങ്ങളിലേക്ക് പോകുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളില് ഗതാഗതവും സംബന്ധിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കാറുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അഭിമുഖീകരിക്കാറുണ്ട് കാരണം യാത്രാസമയത്ത് നമ്മള് ആഭിമുഖിക്കുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഭാഷ തന്നെയാണ് ഒരു ഭാഷ അറിയാത്തൊരു വ്യക്തി ഒരു ബസിൽ കയറണം എന്നുണ്ടെങ്കിൽ ആ ബസിൻ്റെ ബോർഡ് വായിക്കാനറിഞ്ഞിരിക്കണം അവിടത്തെ കണ്ടക്റ്ററോടോ അല്ലെങ്കിൽ ക്ലീനറോടോ സംസാരിക്കാനറിഞ്ഞിരിക്കണം ഇതുപോലുള്ള സമയത്ത് നമ്മളെന്താ ബുദ്ധിമുട്ടും അപ്പോള് അതാണ് നമ്മളുടെ ഭാഷയിലുള്ള അടുത്തുള്ള പട്ടണത്തിൽ പോവുന്ന സമയത്ത് ഭാഷയിൽ വരുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ നമ്മളുടെ സംസാരരീതി എന്ന് പറയുന്നത്